കൈ കൊണ്ടുണ്ടാക്കിയ കാർഡ് കാർഡും ചിത്രമൊക്കെ ഞമ്മള് ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ക്രിസ്മസിനൊക്കെ ഗ്രീറ്റിങ്ങ് കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയുണ്ട് ഇല്ലാണ്ട് പിന്നെ ബർത്ത് ഡേയ്ക്ക് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയൊക്കെ ബർത്ത് ഡേയ്ക്കൊക്കെ നമ്മൾ കാർഡ് പിന്നെ എന്തെങ്കിലൊക്കെ കാർഡിൽ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടും പിന്നെ അതിൽ കുറച്ച് ഡയലോഗ്സ് എഴുതി കൊണ്ടൊക്കെ അങ്ങനെ കൊടുക്കാറൊക്കെയുണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ കാർഡൊക്കെ ഞാനും അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെയുണ്ട് ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലാണ് കാർഡ് കൂടുതലായിട്ട് വരണത് ഈ നമ്മളാണെങ്കിൽ തന്നെ നമ്മുടെ ഫ്രണ്ടിനൊക്കെ എന്തെങ്കിലും ക്രിസ്മസ്സിനെന്നല്ല അല്ലാണ്ട് തന്നെ ബർത്ത് ഡേയ്ക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ വെക്കാറുണ്ട് നമ്മൾ ആശംസ എഴുതി അറിയിക്കാനോ പിന്നെ ആ ഒരു കാർഡ് കാണുമ്പം തന്നെ അവർക്കൊരു സന്തോഷമോ അവർക്കൊരു ഇഷ്ടമൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒരു കാർഡിൽ നമ്മുടെ നമുക്ക് പറയാനുള്ളത് അതിൽ എഴുതിയിട്ടൊക്കെ നമ്മളിങ്ങനെ കൊടുക്കാറ് അയച്ച് കൊടുക്കാറൊക്കെയുണ്ട് അങ്ങനെയാണ് അല്ലാണ്ട് പിന്നെ കാർഡ് അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ടൊന്നുമില്ല ബർത്ത് ഡേ കാർഡും ക്രിസ്മസ് കാർഡൊക്കെയാണ് കൂടുതലായിട്ട് ഞാനൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെയുള്ളത്